ആ ഞങ്ങളുടെ സ്ഥലത്ത് സ്മാരകം സ്മാരകമല്ല കടൽത്തീരമുണ്ട് പ്രശസ്തമായ പ്രശസ്തമായ മത കേന്ദ്രങ്ങളുണ്ട് കടൽ തീരമുണ്ട് കടൽ തീരത്തീന്ന് പറഞ്ഞാൽ മിക്ക സീസണുകളും വിനോദസഞ്ചാരികൾ വരാറുണ്ട് കൂടുതൽ വെക്കേഷൻ ടൈമിലാണ് കടൽ തീരത്തൊക്കെ കൂടുതലും വന്നിരിക്കുന്നത് പിള്ളേരേ സ്കൂളുകളീന്നൊക്കെ ടൂർ കൊണ്ട് വരാറുണ്ട് അവർ എൻജോയ് ചെയ്യുക കടൽ തീരം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാമല്ലോ കടൽ തീരത്ത് ഒരു മണിക്കൂർ പോയിരിക്കുമ്പം ആ ഒരു കടലിൻ്റെ തിരമാലകൾ എണ്ണുന്നതെന്നൊക്കെ പഴയ കാലത്ത് പറയും എങ്കിൽപ്പോലും ഒരാശ്വാസകരമായ കാര്യമാണ് കടൽ തീരത്ത് പോയി ഇരിക്കാന്നുള്ളത് അവിടെ ഒത്തിരി ഒത്തിരി വിനോദസഞ്ചാരികളെ കാണാം ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ ചിലപ്പോൾ സങ്കടപ്പെട്ടൊക്കെ ചിലർ മാറി ഇരിക്കുന്നത് കാണാം ചിലത് ചില പിള്ളേരൊക്കെ കിടന്നെഞ്ചോയ് പി ചില മനുഷ്യരൊക്കെ ആണെങ്കിൽ ആ കടലിന്റെ അകത്ത് കിടന്ന് മറിഞ്ഞു മറിഞ്ഞ് അവർ ശരിക്കും അവരെഞ്ചോയ് ചെയ്യുന്നത് കാണാം ചെ കാണാത്ത കടൽ കാണാത്ത ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നൊരു വളരെ വളരെ ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ ആ കടലിലേക്ക് വന്ന് നിൽക്കുന്നത് കാണാം ടൂറിസ്റ്റ്കാരാണ് ബസ്സ് കണക്കാണ് ആൾക്കാരും പിള്ളേരും വലിയ എന്ത് ച്ചാ പ്രായമുള്ള മനുഷ്യർ പോലും വരും വടി കുത്തി ഞാൻ ഒരിക്കൽ കടൽ തീരത്ത് പോവുമ്പം ഞാൻ കാണാറുണ്ട് വീൽ ചെയെറേൽ ഒരു കുട്ടീനെ ഒരു ഒ ചെറു ഒരു പത്ത് ഇരുപത്തഞ്ചു വയസ്സ് കാണും ആ കൊച്ചിന് ആ ചെറുക്കനുമായിട്ട് വരുന്ന അവന്റെ അപ്പനും അമ്മയും ഫാമിലി ആയിട്ടിങ്ങനെ കടൽ അപ്പോൾ എനിക്ക് ഒ തോന്നി അപ്പോൾ അവർക്കത് തോ അവർക്ക് അത്ര അനുഭവമാണല്ലോ കടലെന്ന് എനിക്ക് തോന്നി തോന്നീട്ടുണ്ട് കാരണം ആ വീൽ ചെയെറേൽ വരെ ആ കടൽ തീരത്ത് കൊണ്ട് ആ കൊച്ചിനെ കൊണ്ടവിടെ നിർത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ കൊച്ചുപിള്ളേരും എല്ലാം കുഞ്ഞി പിള്ളാരെ വരെ ആ കടൽ തീരത്ത് ഇറക്കി വിടാനായിട്ടൊരു പേടിപോലും ഇല്ല പേടി തോന്നില്ലല്ലോന്ന് വിചാരിക്കും അതുപോലെ തന്നെ കടൽ തീരത്ത് ടൂറിസ്റ്റ്കൾ വന്നിട്ട് ദൂരെന്നൊക്കെയാണ് ടൂറിസ്റ്റ്കൾ വരുന്നതെങ്കിൽ അവരവിടെ തന്നെ ഫുഡ് പാചകം ചെയ്യുന്നു ആ വണ്ടിയോടടുത്ത് ചേർന്ന് തന്നെ അവർ ഫുഡ് പാചകം ചെയ്ത് കൂടുതലും തമിഴ്നാട്ടീന്നും ഒക്കെ ഈ ആലപ്പുഴ ബീച്ച് ഞാൻ ആലപ്പുഴ ബീച്ച്നെ കുറിച്ചാണ് പറയുന്നത് ആലപ്പുഴ ബീച്ചിലൊക്കെ വന്ന് ഈ ശരിക്കും എൻഞ്ചോയ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് തമിഴരും തമിഴർ അവിടുന്നൊക്കെ വന്ന് കടൽ കാണാനായിട്ട് വരുമ്പോൾ അവർ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അവിടെ വെച്ച് തന്നെ തയ്യാറാക്കും അതുപോലെ തന്നെ കടൽ തീരത്തെന്ത് രസകരമാണ് അവിടെ കടലിന്റെ ആ തിരമാലകൾക്കൊപ്പം അങ്ങോട്ടും കടൽലേക്കിറങ്ങുന്നതും അതുപോലെ കടലമ്മ കള്ളിന്നൊക്കെ എഴുതിവെക്കുന്നതും ഒക്കെ ഒരു രസകരമായ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ വിനോദസഞ്ചാരികൾ കൂടുതലും കൂട്ടമായി കാ കാണപ്പെടുന്നത് എപ്പോഴും വെക്കേഷൻ ടൈമിൽ തന്നെയാണ് ക്രിസ്മസും അതുപോലെ തന്നെ ആനുവൽ വെക്കേഷനിലും ഒക്കെയാണ് കാണപ്പെടുന്നത് അതോടപ്പം ഞങ്ങളുടെ അടുത്തൊള്ള മതകേന്ദ്രങ്ങളുണ്ട് മതകേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ എടത്ത്വ പള്ളി പോലുള്ള എടത്ത്വ പള്ളി എടത്ത്വ പള്ളിയെ കുറിച്ച് കൂടുതൽ ആർക്കും പറഞ്ഞ് തരേണ്ട കാര്യമില്ല എടത്ത്വ പള്ളിയിൽ ഇതുപോലെ തന്നെ മെയ് മാസത്തിലാണ് മെയ്ലാണ് അവിടുത്തെ പെരുന്നാൾ നടക്കുന്നത് വിസ് വിസ്തഗീവർഗ്ഗീസ് പുണ്യാളൻ്റെ തിരുനാൾ നടക്കുന്നത് ഞാൻ അവിടെ പോകാറുണ്ട് മെയ്ല് കാരണം ഒരു നേർച്ച പോലെ പാമ്പിനെ കാണത്തില്ലന്നൊക്കെ ഉള്ള ആ ഒരു പഴയ ആ ഒരു കാലത്തിന് ബേസ് ചെയ്ത് തന്നെ ഞാനും പ പള്ളി പോകാറുണ്ട് നേർച്ചയിട്ടില്ലെങ്കിൽ പാമ്പിനെ കാണുമെന്നുള്ള വിശ്വാസക്കാരിയാന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴും കാണാം തമിഴർ അവിടെ കുളി അവിടെ ആ വെള്ളത്തിലിറങ്ങി ആ തോട്ടിലിറങ്ങി അവർ കുളിച്ചും നനച്ചും അവർ സന്തോഷം അവർക്കും ഒരു നേർച്ച പോലെയാണ് ഗീവർഗ്ഗീസ് പുണ്യാളൻ്റെ നടയിൽ വരണമെന്നും അതുപോലെ തന്നെ ചുറ്റും കല്ല് കല്ല് തലയിൽ വെച്ചോണ്ട് ചുറ്റി നടക്കുന്നത് ഞാൻ കാണാറുണ്ട് തലവേദനയ്ക്കത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നേർച്ച ആയിരിക്കാം ആ തലയിൽ കല്ല് വെക്കുന്നതും അവരുടെ ഒരു നേർച്ച ആയിരിക്കാം അങ്ങനെ അവർ തലയിൽ ക തലയിൽ കല്ല് വെച്ചോണ്ട് അവർ ചെ പള്ളിക്ക് ചുറ്റും നടക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നീക്കി വെക്കും ഒന്നെങ്കിൽ ആൾ രൂപമോ അല്ലെങ്കിൽ പാമ്പിനെയോ അതൊക്കെ ഒരോരുത്തരുടെ വിശ്വാസം പോലെ ഇപ്പം എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് കൈ ഇപ്പം കൈക്ക് വേദനയാണേൽ കൈ നീക്കി വെക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലെ ക്യൂ ആയിട്ട് നിന്ന് എല്ലാവരും അങ്ങനെ ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട് പോവും അങ്ങനെ പുണ്യാളനെ കണ്ട് നടയിൽ പ്രാർത്ഥിക്കാം അതത് നേർച്ചയിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഒരു വെള്ള ചരടാണ് നമുക്ക് തരുന്നത് കല്ല് ഒരു കല്ലുപ്പും തരും കുറച്ച് അവിടുത്തെ നേർച്ചയാണ് പിന്നെ അല്ല നമ്മുടെ സാധാരണ പള്ളികളിൽ പോകുന്നത് പോലെ തന്നെ അരി വറുത്തതും ഉണ്ടയും അങ്ങനെ ഉണ്ട് എന്നാലും അവിടുത്തെ ഒരു പ്രത്യേകത നേർച്ചയാണ് വെള്ള ചരട് കയ്യിൽ കെട്ടാനായിട്ട് വെള്ള ചരടാണ് അവർ തരാറുള്ളത് അങ്ങനെ അതും സ്വീകരിച്ച് അതൊരു അതും ഒരു ഞാൻ നോക്കിയിട്ട് ഒത്തിരി കടകളും കാര്യങ്ങളും ആയിട്ട് ഒരു പെരുന്നാളിനെ പോലെ തന്നെ എട്ട് ദിവസത്തെ പെരുന്നാളാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോകാറുണ്ട് അവിടെ അങ്ങനെ അവിടുന്നാണ് പള്ളീന്ന് ഒരു പിന്നെ മെയിൻ റോഡിലേക്ക് വരാനായിട്ടൊരു പാത ഒരു ചെറിയ വഴിയാണ് ആ രണ്ട് വഴിയിൽ കൂടെയും ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകണത് തിക്കും തിരക്കും അങ്ങനെ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ കൂടുതലും തമിഴ് നാട്ടുകാരെ ആണ് അവരെ കാണാറുള്ളത് അങ്ങനെ കൂടു അതും ഒരു മെയ് മാസത്തിലായോണ്ട് വെക്കേഷൻ ടൈമും കൂടെ ആയതു കൊണ്ട് ഒത്തിരി ആൾക്കാർ അവിടേം വരാറായിട്ടുള്ളതായിട്ടെനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് ബീച്ചും അതുപോലെ മതകേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ എടത്ത്വപള്ളി മാത്രവല്ല ചെമ്പക്കുളം പള്ളീം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ചെമ്പക്കള്ള പ ചെമ്പക്കുളം പള്ളിയിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് കാണാൻ പറ്റും അവിടെയും ആൾക്കാരൊത്തിരി അവിടെയും പള്ളി തുറന്നിടും അത് പെരുന്നാൾ സമയത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ എറ്റോം പ്രധാനപ്പെട്ടത് മാർച്ച് മാസത്തിലെ ഔസേപ്പിതാവിൻ്റെ മരണ തിരുന്നാളാണ് ആ മരണ തിരുന്നാളിനു പോലും ഇഷ്ട്ടം പോലെ ആൾക്കാരാണ് അവിടവിടെ നേർച്ചയും കാര്യങ്ങളും അവിടെ മുറ്റത്ത് അവിടെ ഒരു ഏറ്റോം പ്രധാനപ്പെട്ടെതെന്ന് പറഞ്ഞാൽ അവിടൊരു വഞ്ചിയുണ്ട് അത് സാമ്പാർ തോണീന്നാണ് അതറിയപ്പെടുന്നതുപോലും അതുപോലെ തന്നെ ആ മലയമാതാവും അങ്ങനെ പായ്മെ എന്ന് വെച്ച ആ അവിടുന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബെസ്സിലിക്കാപള്ളിയാണ് അവിടെ എപ്പം വേണേലും നമുക്കൊന്നു കയറി പ്രാർത്ഥിക്കാം പള്ളിയെപ്പോഴും തുറന്നിട്ടിരിക്കും അവിടെ കയറി നമുക്ക് എപ്പോഴു ഒന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും കാണാം അവിടേം കാണാം ഒത്തിരി വിനോദസഞ്ചാരികൾ വരും അവിടുത്തെ ഒത്തിരി കൗതുകകരമായ പള്ളികളോരോ കൊത്ത് പണികളൊക്കെ അവിടെ കൊത്തുപണികളെന്ന് വെച്ചാൽ ഒരു പഴയക്കാലത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ പള്ളിയ്ക്കകത്തുണ്ട് അത് കാണാൻ വേണ്ടി ഒത്തിരി പ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്ന് ഞാൻ ആ ആ സ്കൂ അവിടുത്തെ ആ പള്ളീടടുത്തൊരു സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് സെൻമേരീസ് സ്കൂളിൽ തന്നാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഞാൻ കാണാറുണ്ടെപ്പോഴും അവിടെ വ് വിനോദസഞ്ചാരികളൊക്കെ വന്ന് അവിടെ ഫോട്ടോ എടുക്കേംയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒത്തിരി കാണാറുണ്ട് ഇപ്പം അപ്പം ആ സീസണിൽ വെക്കേഷൻ ടൈമിലാണ് ഈ രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ മതകര ഈ പള്ളികളിലാണേലും ബീച്ചിലാണേലും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നത് ഈ വെക്കേഷൻ ടൈമിൽ തന്നെയാണ്